നമ്മുടെ ഇപ്പോഴത്തെ സ്കൂളിലെ സിറ്റുവേഷൻ അനുസരിച്ച് ഒരു സ്കൂളിൽ നമ്മൾ അതായത് ഗവൺമെന്റ് സ്കൂളിൽ കുഴപ്പമില്ല ഗവൺമെൻ്റ് സ്കൂളിൽ ഒന്ന് തൊട്ടിട്ടെ ഉള്ളു പ്രിഫെർ ചെയുന്നത് എൽ കെ ജി യു കെ ജിയും ഇല്ല അപ്പോൾ നമ്മൾ കൂടുതലാൾക്കാരും പ്രൈവറ്റ് സ്കൂളിനെയാണ് ആശ്രയിക്കുക അപ്പം പ്രൈവറ്റ് സ്ക്കൂളിൽ പിന്നെ നമ്മൾ മുൻകൂറെ നമ്മൾ അതായതൊരു ഓഗസ്റ്റ് മാസാവുമ്പോഴേക്കും തന്നെ അടുത്ത അടുത്ത വർഷത്തെ അടുത്ത അദ്ധ്യയയന വർഷത്തേക്കുള്ള പിന്നെ സീറ്റ് ബുക്ക് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ആദ്യം അവർ പതിനായിരം രൂപയായിരിക്കും ഡൊണേഷൻ ചോദിക്കുന്നത് അപ്പം ഒരു അയ്യായിരം രൂപ കൊടുത്തിട്ട് നമ്മൾ സീറ്റ് ബുക്ക് ചെയ്യും അതായത് ഈ വർഷം ഒരയ്യായിരം കൊടുത്ത് അടുത്ത വർഷത്തേയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലേയ്ക്ക് ബുക്ക് ചെയ്യുക അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഇത് കാര്യങ്ങൾ ഇങ്ങനയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഒര് പതിനായിരം രൂപയിൽ ഒരയ്യായിരം കൊടുത്ത് നമ്മൾ ബുക്ക് ചെയ്യുന്നു അതു കഴിഞ്ഞ് അടുത്ത അദ്ധ്യയന വർഷം നമ്മൾ സ്ക്കൂൾ തുറക്കുന്ന ഇപ്പോൾ എൽ കെ ജിയിലേക്കാണ് ചേർക്കുന്നതെങ്കിൽ ബാക്കി അയ്യായിരം കൂടി കൊടുത്ത് പതിനായിരം രൂപ ഡൊണേഷൻ കൊടുക്കുന്നു പിന്നെ ബാഗ് ബുക്ക് ഒക്കെ എക്സ്ട്ര കേട്ടൊ നമ്മൾക്ക് അത് സ്ക്കൂളിൽ കൊടുക്കേണ്ട ഫീ അല്ല നമ്മുടെ പിന്നെ ഇതാണ് ബാഗും കുടയുമൊക്കെ നോട്ട്സ് ബുക്കും ബാക്കി ടെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിനുള്ള ഫീസ് പിന്നെ യൂണിഫോമിനുള്ള ഫീസ് അതൊക്കെ സ്ക്കൂളിനാണ് നമ്മൾ കൊടുക്കുന്നത് സ്കൂളിന് യൂണിഫോമിനാണെങ്കിൽ രണ്ടായിരം രൂപ നമ്മൾ കൊടുക്കണം നോട്ട് ബൂക്ക് നോട്ട്ബുക്കൊഴിച്ച് ടെക്സ്റ്റ് ബുക്കിനാണെങ്കിൽ ആയിരം രൂപ പിന്നെ ട്യൂഷൻ ഫീ ട്യൂഷൻ ഫീ നമ്മൾ പിന്നെ അവർ പിന്നെ പതിനാറേ സംതിങ്ങാണ് ട്യൂഷൻ ഫീ ഒരു വർഷത്തേയ്ക്ക് പറഞ്ഞിരിക്കുന്നത് അതിലൊരു നാലായിരത്തഞ്ഞൂറ് രൂപയെങ്കിലും നമ്മൾ അഡ്വാൻസ് കൊടുക്കണം അതു കഴിഞ്ഞ് ഗഡുക്കളായിട്ട് കൊടുക്കാമെന്നാണ് പിന്നെ ഉള്ളത് പിന്നെ നമുക്ക് ചെറിയ കൊച്ചായതുകൊണ്ട് നമുക്ക് കൊണ്ടുവിടാൻ പറ്റുന്നവരാണെങ്കിൽ കൊണ്ടുവിടാം അല്ലാതെ നമ്മൾക്കുള്ള ഒരു പിന്നെ ഇത് എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സാണ് ബസ്സ് സൗകര്യം അല്ലെങ്കിൽ നമ്മൾ ഓട്ടോ അങ്ങനെ പക്ഷെ സ്ക്കൂളിൽ നമ്മുടെ ഈ ഇംഗ്ലീഷ് മീഡിയം സ്ക്കൂൾ അതായത് സി ബി എസ് സി സിലബസ്സുള്ള ഇംഗ്ലീഷ് മീഡിയം സ്ക്കൂളിൽ അവരുടെ തന്നെ താഴെ ബസ്സുകളുണ്ടാവും ആ സ്ക്കൂളിന്റെ കീഴിൽ തന്നെയുള്ള ബസ്സുകളിലായിരിക്കും കുട്ടികളെ വിടുക നമുക്ക് ഒത്തിരി ദൂരമായതുകൊണ്ട് നമുക്ക് കൊണ്ടുവിടാനുള്ള പറ്റാത്തതുകൊണ്ടും നമ്മൾ ബസ്സിനെയാണ് ആശ്രയിക്കുക അപ്പം ബസ്സിനാവുമ്പം അവർക്ക് ഒരു മാസത്തേയും പിന്നെ തൊള്ളായിരത്തി അമ്പത് രൂപ അങ്ങനെയാണ് ഒരു മാസം അപ്പം നേരത്തെ അഡ്വാൻസ് കൊടുക്കാം ഇത്ര രൂപ മൂവായിരത്തി സംതിങ്ങ് രൂപ നമ്മൾ അഡ്വാൻസ് കൊടുക്കണം ഒരു വർഷം തുടങ്ങുന്നതിന് മുൻപ് ഇത്ര അപ്പം നമുക്ക് അടുത്ത മാസം പിന്നെ ഉള്ളപ്പോൾ ഒരു അഞ്ഞൂറ് വച്ച് കൊടുത്താലും കുഴപ്പമില്ല പക്ഷെ ഫസ്റ്റ് നമ്മൾ തുടക്കത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ അഡ്വാൻസ് കൊടുക്കണം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഒരു വിദ്യാഭ്യാസം വിദ്യാഭ്യാസം കച്ചവടമാണോയെന്ന് ചോദിച്ചാൽ ആണെന്ന് തോന്നിക്കുന്ന ഒരിതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന ഒരിത് പക്ഷെ ഗവൺമെന്റിലാവുമ്പം ഈ ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ സാധാരണ മക്കൾ നല്ല വിദ്യാഭ്യാസം കിട്ടട്ടെയെന്ന് വച്ചിട്ട് നമ്മൾ സി ബി എസ് സി സ്ക്കൂളിലാണ് കൂടുതലാശ്രയിക്കുക അപ്പോൾ അവിടെത്തൊരിതെന്നു വച്ചിട്ടിണ്ടെങ്കിൽ

മൂവ്വായിരത്തഞ്ഞൂറ് രൂപ ബസ്സ് ഫീ കൊടുക്കണം എക്സ്ട്ര പിന്നെ ബാഗിന് ഒഴിച്ചിട്ട് നമ്മൾ ബുക്ക് ടെക്സ്റ്റ് ബുക്കിന് കൊടുക്കണം ടെക്സ്റ്റ് ബുക്കിനാണ് ബുക്കെന്നു ഉദ്ദേശിച്ചത് ടെക്സ്റ്റ് ബുക്ക് യൂണിഫോം പിന്നെ ബെൽറ്റ് ടാഗ് ഇതിനൊക്കെ നമ്മൾ കൊടുക്കണം